ആരാധനാലയങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന പരിപാടികളുണ്ട് എന്ന് വെച്ചാൽ അമ്പലങ്ങളിലാണെങ്കിൽ ഇപ്പം ഉത്സവ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഭജന ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ അല്ല എല്ലാ ദിവസവും അമ്പലത്തിൽ കീർത്തനങ്ങളൊക്കെ പാടും ദീപാരാധന കഴിഞ്ഞ് കീർത്തനങ്ങളൊക്കെ പാടുന്ന അമ്പലങ്ങളുണ്ട് അതുപോലെതന്നെ പള്ളികളിലൊക്കെ ഞായറാഴ്ച ആരാധനയുണ്ട് എല്ലാ ആൾക്കാരും ഒത്തുകൂടി പള്ളിയിലൊക്കെ ആരാധനയുണ്ട് പിന്നെ അതുപോലെതന്നെ ദർഗകളിലെ ഗവാലികള് നിസ്കാര പള്ളിയിലെ നമസ്കാര കൂട്ടായ്മ അത് എല്ലാ നിസ്കാര പള്ളിയിലും ഉണ്ട് നമസ്കാര കൂട്ടായ്മ ബാങ്ക് വിളി അതുപോലെയുള്ള പിന്നേ അതുപോലെതന്നെ പറയുന്നതാണ് ഗുരുദ്വാരയിലെ കീർത്തനം പിന്നെ അതുപോലെതന്നെ മറ്റൊന്നാണ് ഈ മഠങ്ങളിലെ ആരാധന മിക്ക മഠങ്ങളിലും ഉള്ള ഒരിതാണ് ആരാധന അതിപ്പം മഠങ്ങളിലാ അമ്പലങ്ങളിലായാലും ആരാധന അതുപോലെതന്നെ ഇപ്പോൾ എന്താണ് ഒരു ഇതുണ്ട് എല്ലാ ആരാധനാലയങ്ങളിലും അവിടുത്തേതായ രീതിയിലുള്ള ആരാധനാ രീതികൾ ആഘോഷിക്കപ്പെടുന്ന പരിപാടികളാണ് ആരാധനയായിട്ട് നോക്കുന്നത്